ആ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആ അത് എനിക്ക് ഒരു സ്റ്റോറേജ് റൂം പണിയാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ മുകളിൽ

ആ വീടിൻ്റെ മുകളിൽ തന്നെ പണിയാൻ വേണ്ടിയിട്ടാണ് സ്ഥലം ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഒരു അത്ര വലിപ്പം ഒന്നും വേണ്ട നമുക്ക് ആ ചെറിയ ഒരു റൂം പോലെ മതി നമുക്ക് ഇപ്പോൾ സാധാരണ എത്ര വരും പണിയാൻ ആ ചെറുത് ചെറിയ റൂം മതി വരും അല്ലേ ആ എത്രയും വേഗം തീർക്കാൻ പറ്റുമോ അത്രയും വേഗം നല്ലത് കാരണം റൂമിൽ സാധനങ്ങൾ വെക്കാൻ ഒന്നും സ്ഥലം ഇല്ല അതുകൊണ്ട് ആണേ എക്സ്ട്രാ ഒരു റൂം ഉണ്ടെങ്കിൽ സാധനം ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് ആ ഇത് കോൺട്രാക്ട് പോലെ വരുന്നതല്ലേ നമ്മൾ

എടുക്കേണ്ടി വരും അല്ലേ ഓ അത് വേണ്ട നമുക്ക് കോൺട്രാക്ട് വർക്ക് തന്നെ മതി അപ്പം ഞങ്ങൾ പൈസ കുറച്ച് അഡ്വാൻസ് തരാം എന്നിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ ബാക്കി പിന്നെ തന്നാലും മതിയല്ലോ ഇല്ല നമുക്ക് ഞങ്ങൾ ആദ്യം കുറച്ച് അഡ്വാൻസ് തരാം അല്ലേ അഡ്വാൻസ് ആയിട്ട് അപ്പം എത്ര തരേണ്ടി വരും ഇപ്പോൾ സാധനങ്ങൾ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടെ പത്തായിരം ആയിട്ട് അല്ലേ ഇപ്പോൾ തരാമല്ലേ ആ ആ ആ ഓക്കെ ആ മതിയാകും അല്ലേ അത് വേണമെങ്കിൽ പിന്നെ അടിക്കാം അല്ലേ ആദ്യം കുറച്ച് ഇറക്കിയിട്ട് ആ ആ എന്നാൽ അങ്ങനെ മതി ഇപ്പോൾ ഞാൻ എന്നാൽ അഡ്വാൻസ് തരട്ടേ ആ എന്നാൽ ഗൂഗിൾ പേ ചെയ്യാം ഓക്കെ ഓക്കെ ശരി